ഹലോ ഇത് ഒനിയൻ റസ്റ്റോറന്റ് അല്ലേ ഞാൻ എൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു അതൊരു അത്യാവശ്യ കാര്യം കാരണം ഞങ്ങളത് റദ്ദാക്കുവാണ് എനിക്കൊരു സ്ഥലം വരെ പോവണമായിരുന്നു അത് കാരണം ഞങ്ങളത് റദ്ദാക്കാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുന്നു ഓക്കെ ഞാൻ അതിന്റെ പൈസ നേരത്തെ അടച്ചിരുന്നതാണ് ആ പൈസ ഞങ്ങൾക്ക് തിരിച്ച് ഇറങ്ങുകയും വേണം ഓക്കെ ശരി